സംഗീതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശൈലി എന്ന് പറയുന്നത് നാടൻ പാട്ടുകളുടെ ശൈലിയാണ് നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ തനി നാടനായിട്ടുള്ള ശൈലി ഉപയോഗിച്ച് കൊണ്ട് തന്നെ തനി നാടൻ ഭാഷയിലാണ് ഒരു നാടൻ പാട്ട് രൂപീകരിക്കപ്പെടുന്നത് തനി നാടൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുമ്പുറത്ത് സംസാരിച്ച് കൊണ്ടിരിക്കുന്ന ഭാഷയിലാണ് ഒരു പാട്ട് ഒരു നാടൻ പാട്ട് എഴുതി തിട്ടപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഒരു നാടൻ പാട്ടിൽ അടങ്ങിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ നാട്ടിൽ നടക്കുന്നത് ആയിട്ടുള്ള അനാചാരങ്ങളെക്കുറിച്ചിട്ടും അനുഷ്ഠാനങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതലും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഗാനമാണ് നാടൻ പാട്ട് എന്ന് പറയുന്നത് മാത്രമല്ല ആ ഒരു പാടുന്നതിൻ്റെ ശൈലി ആവട്ടെ സാധാരണ ഒരു സംഗീതം ആലപിക്കുന്നതിൽ നിന്നും ഏറെ ഡിഫറൻസ് ആയിട്ടാണ് ഏറെ വ്യത്യാസത്തിലാണ് ഒരു നാടൻ പാട്ട് പാടുന്നത് പാടുന്നതിന് ഉച്ചത്തിൽ പാടുക അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യമെന്ന് പറയുന്നത് അതായത് ഒരു സംഗീതം ആലപിക്കുന്ന ടൈമിൽ വളരെ എന്താണ് പറയുക വളരെ സാവധാനത്തിൽ വളരെ മൃദുലമായിട്ടാണ് സംഗീതം എന്ന് പറയുന്നത് ആലപിക്കുന്നത് എന്നാൽ ഇവിടെ ഈ നാടൻ പാട്ട് എന്ന് പറയുന്നത് വളരെ ശബ്ദത്തിൽ വളരെ ശബ്ദ ഗാംഭീര്യത്തിലാണ് പാടി ഫലിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ ശബ്ദത്തിനോടൊപ്പം തന്നെ അവരുടെ എനർജി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അവരവിടെ ഭയങ്കരമായിട്ട് ആ പാട്ടിന് വേണ്ടിയിട്ട് ആ നാടൻ പാട്ടിന് വേണ്ടിയിട്ട് അവർ മൊത്തമായിട്ട് എന്താണ് പറയുക ആ ഗായകന്മാർ മൊത്തമായിട്ടവിടെ കാണിക്കും അവരുടെ ഫുൾ എനർജിയും അവിടെ വെച്ചിട്ടാണ് ആ ഒരു പാട്ട് പാടുന്നത് ആ ശൈലി ആവട്ടെ ആ ഒരു നാടൻ സംസാരങ്ങൾ അതിനകത്തേക്ക് വരും നാടൻ ഭാഷ നാടൻ എല്ലാം വളരെ നാടനായിട്ടാണവിടെ ചെയ്യുന്നത് ഒരു നാടൻ പാട്ട് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലിഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ അതുപോലെ തന്നെ നാടൻ ശൈലിയെയും ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്നു